ഹലോ ഡെൻ്റൽ ഡോക്ടർ അല്ലേ ആ എനിക്ക് വല്ലാണ്ട് പല്ല് വേദനയും കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആ ചെറിയ ഒരു ഓട്ട ചെറുതായിട്ട് ഇങ്ങനെ കേടുണ്ട് ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ചെറിയ ഒരു ഹോൾ പോലെ ഉണ്ട് ഭയങ്കര വേദനയും ആ ആ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്ന ആളാണ് ഇല്ല ഞാൻ രാവിലെ മാത്രമേ ബ്രഷ് ചെയ്യാറുള്ളൂ ആ മോണയ്ക്ക് ചെറുതായിട്ട് നീരുണ്ട് ആ ഉണ്ട് ഭയങ്കര വേദനയാണ് സഹിക്കാനാവാത്ത വേദനയാണ് ഏയ് ഇല്ല അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല ചൂട് വെള്ളം അല്ലേ ആ ഓക്കെ ഓക്കെ ഉപ്പ് ഉപ്പ് വെള്ളത്തിന്റെയാണോ ഉപ്പ് വെള്ളം കൂട്ടിയിട്ടാണോ കൊള്ളേണ്ടത് ആ ഓക്കെ ഓക്കെ ആ ആ പേസ്റ്റ് അല്ലേ ഓക്കെ സെൻസോഡൈനിന്റെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ആണല്ലേ ആ ഓക്കെ ആണല്ലേ ആ ഓക്കെ ആ ഓ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഓട്ടയോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് പറിച്ച് കളയാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അടയ്ക്കുന്നത് ആണല്ലേ ഓക്കെ ആ ഓക്കെ എനിക്ക് ഇരുപത്താറ്

പ്രശ്നം ആവും അല്ലെ ആ ഓക്കെ ഓക്കെ ആണല്ലേ ആ ഓക്കെ ഓക്കെ